സംസ്കൃതം ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകൾ മലയാള ഭാഷയെ എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ല രീതിയിലും സ്വാധീനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് ശതമാനത്തോളം എങ്കിലും മോശം രീതിയിലും സ്വാധീനിച്ചിട്ടുണ്ട് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതലും ഒരു എക്സാം ഒരു ഉദാഹരണമായിട്ട് പറയുമ്പോൾ ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ തന്നെ മ് ഇപ്പം എല്ലാ സ്കൂളിലും എൽ കെ ജി തൊട്ടിട്ട് ഇംഗ്ലീഷ് മീഡിയം ആണ് വരുന്നത് മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളെക്കാൾ കൂടുതൽ വരുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളാണ് കാരണം ആർക്കും ഇപ്പം മലയാളം വേണ്ട ഇപ്പം അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കാരണം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പത്താം ക്ലാസ് വരെയാണ് നമുക്ക് മലയാളം ഒരു എന്താ പറയുക ഒരു ഒരു ലാ ഒരു ഭാഷയായിട്ട് എടുത്ത് പറയാനാണെങ്കിൽ പത്താം ക്ലാസ് വരെ നമുക്ക് അത് ആവശ്യം വരുന്നുള്ളൂ പത്തു കഴിഞ്ഞാൽ നമുക്ക് മുഴുവനും വേണ്ടത് ഇംഗ്ലീഷാണ് നമ്മളുടെ പത്താം പ്ലസ് വണ്ണും പ്ലസ് ടൂവും അത് കഴിഞ്ഞ് ഡിഗ്രി ആണെങ്കിലും നമുക്ക് വരുന്നത് ഇംഗ്ലീഷ് ആണ് അതിൽ ഒരു സെക്കൻഡ് ലാംഗ്വേജ് അതായത് നമുക്ക് അധികമായി പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഷ മാത്രമായിട്ട് ഒതുങ്ങുകയാണ് മലയാളം അതുകഴിഞ്ഞ് പിന്നെ ഡിഗ്രിക്ക് പോകുന്ന കുട്ടികൾ തുടർ പഠനത്തിന് പോകുന്ന കുട്ടികൾ ഇഷ്ടത്തോടെ മലയാളം എടുക്കുമ്പോൾ മാത്രമേ മലയാളത്തിനവിടെ സ്ഥാനം വരുന്നുള്ളൂ ഇപ്പോൾ കൂടുതൽ കുട്ടികളും അതും ചെയ്യുന്നില്ല ഇപ്പം എല്ലാവർക്കും മറ്റ് ഇതുമതി ഇപ്പോൾ എന്താ പറയുക തൊഴിൽ തൊഴിൽ ആശ്രയിക്കുന്ന തൊഴിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കുക അതിപ്പോൾ കുട്ടികൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മലയാള ഭാഷ ഇപ്പം ആർക്കും വേണമെന്ന് ഇല്ല പിന്നെ ആർക്കും ഇപ്പം എന്താ പറയുക കേരളത്തിൽ നിൽക്കാൻ താത്പര്യമില്ലലോ എല്ലാവരും ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു പോകാനാണ് ആഗ്രഹിക്കുന്നത് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് മലയാളം കിട്ടിയിട്ട് കാര്യവുമില്ല അവർ ഇംഗ്ലീഷാണ് തേടി പോകുന്നത് എനിക്ക് ഒരു അഭിപ്രായം പറയാം എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഈ സ്കൂളുകളിൽ നിന്ന് തന്നെയാണെങ്കിലും ഈ മലയാള ഭാഷയെ കുറച്ചും കൂടി എന്താ പറയുക നമ്മുടെ മാതൃഭാഷയാണ് ഇത് നമ്മൾ എന്നും അറിഞ്ഞിരിക്കണം എന്ന രീതിയിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുക തന്നെ വേണം എല്ലാ സ്കൂളിലും നിർബന്ധമായിട്ടും എല്ലാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പോലും നിർബന്ധമായിട്ടും മലയാളം പത്തു വരെ പഠിപ്പിച്ച് ഈ മറ്റേ ഇംഗ്ലീഷിന് കൊടുക്കുന്ന അതേ പ്രാധാന്യത്തോട് കൂടി തന്നെ മലയാളത്തിനെയും കൊടുത്ത് വളർന്ന വളർത്തിയെടുത്താൽ മാത്രമേ നമ്മുടെ മലയാള ഭാഷയെ നമുക്ക് മുന്നോട്ട് കൊണ്ടു പോകാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ നാളെ മലയാള ഭാഷയുടെ പതനം ആയിരിക്കും നമുക്ക് കാണേണ്ടി വരിക